ഒരു കിണറ്റിൽ എങ്ങനെ വെള്ളം എടുക്കും അതിനായി ഇലക്ട്രിക് മോട്ടർ എങ്ങനെ ഉപയോഗിക്കുമെന്നതിനെ കുറിച്ചിട്ട് എനിക്ക് കാര്യമായിട്ട് ഒന്നും അറിയില്ല എന്നാലും ചില കാര്യങ്ങൾ അറിയാം ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മോട്ടര് ഉണ്ട് ആ മോട്ടർ ഇലക്ട്രിക് മോട്ടോർ ന് ആവശ്യമായിട്ട് നമുക്ക് വേണ്ടത് മോ ഒരു മോട്ടോർ വേണം അതിന് മോട്ടറിന് കണക്ഷൻ കൊടുക്കാൻ ഒരു പൈപ്പ് വേണം അങ്ങനെ അങ്ങനെ കറണ്ട് വേണം ഇതൊക്കെ വേണം അതിന് നമുക്കിപ്പം സാധാരണയായി കണ്ടുവരുന്നത് രണ്ടുതരം മോട്ടോർ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കിണറ്റിൽ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മോട്ടോറും ഒന്ന് പുറത്ത് കിണറിൻ്റെ പുറത്ത് വെക്കുന്ന തരത്തിലുള്ള വെള്ളത്തിൽ ഇറക്കി വെക്കാണ്ട് പുറത്ത് വെക്കുന്ന തരത്തിലുള്ള മോട്ടോറും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് മു മൂന്ന് വയറുകളാണ് മോട്ടറിന് ഉള്ളത് അത് സ്റ്റാർട്ടിങ് റണ്ണിങ് കോമൺ എന്നിങ്ങനെ അറിയപ്പെടുന്ന മൂന്നു വയറുകൾ ആണുള്ളത് അത് മോട്ടർ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് കപ്പാസിറ്റർ വേണം അതിൻ്റെ കൂടെ തന്നെ കപ്പാസിറ്റർ കിട്ടും ആ കപ്പാസിറ്റർ വേണം അപ്പം ആ മോട്ടറിൻ്റെ വയർ വയറുകൾ ഈ കപ്പാസിറ്ററുവായിട്ട് നമ്മൾ ബന്ധിപ്പിക്കും എന്നിട്ട് നമ്മളത് മോട്ടറിൻ്റെ വയറ് പിന്നെ പവറിൽ കണക്ട് ചെയ്യും പവറിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓൺ ചെയ്യും പവറിൽ കണക്ട് ചെയ്യും എന്നിട്ട് അത് മാത്രമല്ല അതിൻ്റെ ഒരു സൈഡ് മോട്ടറിൻ്റെ ഒരു സൈഡ് പൈപ്പിൽ കണക്ട് ചെയ്യണം നമുക്ക് പുറത്തോട്ടേക്ക് വെള്ളം വരേണ്ട കിട്ടേണ്ട ടാങ്കിലോട്ട് വാട്ടർ ടാങ്കിലോട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മോട്ടറിൻ്റെ ഒരു ഭാഗം പൈപ്പ് ആയിട്ട് കണക്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ കണക്ട് അതും കണക്ട് ചെയ്ത് എന്നിട്ട് പവർ കൊടുത്ത് സ്വിച്ച് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് മോട്ടോർ പ്രവർത്തിക്കും അങ്ങനെ അങ്ങനെയാണ് നമ്മൾക്ക് ഇലക്ട്രിക് മോട്ടർ പ്രവർത്തനം ചെയ്യുന്നത്